ഞങ്ങളുടെ പ്രദേശത്തും ഞങ്ങളുടെ ജില്ലയിലും അങ്ങനെ മ്യൂസിയങ്ങളായിട്ടൊന്നും അങ്ങനെ ഇല്ല ഞങ്ങളെ സ്കൂൾ കുട്ടികളാണേ പോലും ഒരു മ്യൂസിയം എന്ന സംഭവത്തിലൂടെ സന്ദർശനത്തിന് കൊണ്ടുപോകുന്നത് ഞങ്ങൾ മറ്റു ജില്ലകളിലേക്കാണ് ഈ എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലേക്കാണ് ഞങ്ങൾ ഞങ്ങളെയും ഉൾപ്പെടെ കൊണ്ടുപോകാറുള്ളത് ഞങ്ങളുടെ ജില്ലയിൽ ഇതുവരെയായിട്ടും ഒരു മ്യൂസിയം എന്നത് വന്നിട്ടില്ല എൻ്റെയൊക്കെ അനുഭവത്തിൽ ഞങ്ങൾ തിരുവനന്തപുരം മ്യൂസിയത്തിലൊക്കെ പോയിട്ടുണ്ട് അല്ലാതെ നമ്മുടെ ഇവിടുന്ന് എല്ലാവരെയും ഒരു ടൂർ എന്ന മുഖേന കുട്ടികളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിളിൽനിന്നും പള്ളികളിൽനിന്നും തുടങ്ങിയ ഓരോ ക്ലബ്ബുകളിൽനിന്നും ഒക്കെ ഇങ്ങനെ ഓരോ വിനോദയാത്ര എന്ന പേരിലും നമ്മൾ മ്യൂസിയങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് നമ്മളെ ജില്ലയില് അതിനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കായിട്ടതൊന്നും വെച്ച് തന്നിട്ടില്ല വേറെയും തിരുവനന്തപുരം എറണാകുളം ആ സൈഡിലോട്ടൊക്കെ നമ്മൾ പോയിട്ടുള്ളൂ നമ്മൾ ഇതിനെക്കുറിച്ചും മ്യൂസിയങ്ങളൊക്കെ കാണാനും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ അങ്ങനെ പോയിട്ടുള്ളൂ ഞാൻ ഉൾപ്പെടെ പണ്ടുകാലത്തുള്ള ചില ആൾക്കാരുടെ സംഭവങ്ങളും ജീവിത രീതികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മ്യൂസിയങ്ങളൊക്കെ കാണുവാനായിട്ട് പോയിട്ടുണ്ട് പിന്നീട് ഏറെ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ് കാരണം പുരാതനകാലത്ത് ഉപയോഗിച്ച കാര്യങ്ങളും ഉപയോഗിച്ച സംഭവങ്ങളും അതിന് തെളിവുകളും അതിൻ്റെ ഈ പ്രദർശനം ആയിട്ട് കാണുമ്പോൾ ഏറെ അത് പിള്ളേർക്കും പോവുന്ന കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഒരു സന്തോഷം തോന്നാറുണ്ട് കാരണം പണ്ടുള്ള കാരണം ഇപ്പോൾ അതൊന്നും നമ്മൾ നേരിൽ കണ്ടിട്ടില്ല നമ്മൾ കാണുമ്പോൾ എല്ലാവരെയും ഉപരി ഈ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈ വലിയ ഒരു സംഭവമായിട്ട് തോന്നും അവർക്കൊക്കെ ഇങ്ങനെത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഇൻ്റെറെസ്റ്റും ആയിരിക്കും പിന്നീട് കുട്ടികൾക്കായിട്ടുള്ള പല കുട്ടി പല രീതിക്കുള്ള അത് ചിലപ്പം മൃഗങ്ങളുടെ അങ്ങനെത്തെ ഐറ്റംസ് ആയിരിക്കാം ചിലപ്പം പുരാതനകാലങ്ങളിൽ ജീവിച്ച പ്രമുഖ ആൾക്കാരുടെയും ചില വിശുദ്ധരുടെയും ചില വലിയ ആൾക്കാരുടെ ഒക്കെ പോലുള്ളവരുടെയും മൃഗങ്ങളുടെ ഫോസിലുകളും പിന്നെ ഈ ബഹിരാകാശത്തുനിന്ന് വന്നിട്ടുള്ള അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓരോന്നും പ്രദർശിപ്പിച്ചിട്ടുള്ളത് എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞാൻ വലുതായിട്ട് നമുക്ക് മ്യൂസിയം കാണാനായിട്ട് കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് എന്നൊക്കെ പറയുമ്പോൾ മ്യൂസിയത്തിനോടൊക്കെ വലിയ അങ്ങനെ താല്പര്യമില്ലെന്നാണ് നിഗമനം ഇപ്പം എല്ലാവർക്കും ആഘോഷപൂർവ്വമായ ഒരു യാത്രയോടാണ് താല്പര്യം വിനോദയാത്രയ്ക്ക് കുട്ടികൾ തിരഞ്ഞെടുക്കുക മ്യൂസിയമല്ല അവർ കൂടുതലും മ്യൂസിയത്തിൽനിന്ന് ഒക്കെ മാറി കാരണം അവർക്ക് അതിനോട് ഭയങ്കര ഇൻ്റെറസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് വരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുക പിന്നീട് ഇപ്പഴത്തെ കാലത്തുള്ള കുട്ടികൾ മാക്സിമം അത് കാണാതെ ഇരിക്കാനാണ് നോക്കുക എന്തുകൊണ്ടും മ്യൂസിയങ്ങൾ നമ്മുടെ പ്രദേശത്തില്ല നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മൾ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെ പോയിട്ട് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്